എൻ്റെ പ്രോഡക്റ്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ആണ് ഞാൻ ഫോൺ വേടിച്ചത് എന്റെ വീടിനടുത്ത് ഏ അതായത് ഒരു ചേച്ചി ഇ എം ഐ ആയിട്ട് ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻറ്റെയിൽ അധികം പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഫോൺ മേടിക്കാണ്ടിരുന്നത് അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഇ എം ഐ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറോ കോസ്റ്റ് ഇ എം ഐയിലാണ് ഞാൻ മേടിച്ചത് അപ്പോൾ മാസം നമ്മൾ തവണകളായിട്ട് ആയിരം രൂപ വെച്ച് അടച്ചാൽ മതി അപ്പോൾ എനിക്കാ ഒരു ഇത് എൻറ്റെ കയ്യിൽ ആകെ ഒരു ചെറിയ കട്ട പെട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഇപ്പോഴത്തെ കാലത്തുന്ന് വെച്ചിട്ടുണ്ടേൽ എല്ലാവരും നല്ല ഫോണൊക്കേ ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാനും ആ ചേച്ചീനേ കൂട്ടിപോയിട്ടു ഇ എം ഐയിൻറ്റെ ഒരു ഫോൺ എടുത്തു അത്യാവശ്യം നല്ല ഫോണാണ് അതായത് ഓവർ വെയിറ്റ് ഒന്നും ഇല്ല ഓവർ വലുപ്പമില്ല നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ടച്ച് ഫോണാണ് ഇത് ക്യാമറക്ക് വലിയ ക്യാമറ ക്ലിയർ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടേൽ ക്ലിയർ ഉണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ക്യാമറ ഉണ്ട് പിന്നെ ആദ്യം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ വലിയ ഹാങ്ങ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചാർജിങ് കപ്പാസിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ് ഞാൻ മേടിച്ചത് അപ്പോൾ ആ ചേച്ചി മേടിച്ചപോലത്തത് തന്നെ നല്ല ഫോണാണ് ആ ചേച്ചി ആണ് എന്നോട് പറഞ്ഞത് നല്ല ഫോണാ ഇത് എടുത്തോ എന്ന് അപ്പോൾ ഞാൻ അത് എടുത്തു